കൃഷിയുടെ കാര്യത്തിൽ നമ്മുടെ നാട്ടിലിപ്പോൾ ഏതോ ഏറ്റവും വിളവുണ്ടാക്കുന്ന കൃഷിയെന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കേരളത്തിൽ മൊത്തത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ തെങ്ങാണ് ഞങ്ങ നാട്ടിൽ നോക്കുമ്പോൾ നെല്ല് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വ്യാപകമല്ല ഇത് വാഴക്കൃഷി പിന്നെ ചെറിയ ചെറിയ പച്ചക്കറികൾ കാര്യമായിട്ടും തെങ്ങാണ് തേങ്ങ അതാണ് നമ്മളുടെ നാട്ടിലേ ഏറ്റും നല്ല വിള അതുപോലെ തന്നെ വാഴ വാഴ എന്നൊക്കെ പറയുമ്പം നേന്ത്ര പഴം മൈസൂർ പഴം റോബസ്റ്റാ പഴം നിരവധി ഐറ്റംസ് വാഴകളുണ്ട് പഴങ്ങളുണ്ട് ഇതിനൊക്കെ പറഞ്ഞാൽ നല്ല മാർക്കറ്റും ഉണ്ട് ഇന്ന് ഈ വിളകളൊക്കെ ഉണ്ടാക്കാനും വലിയ പണികളും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഇതിനു നല്ല മാർക്കറ്റിംഗ് ഉള്ളതു കൊണ്ട് എല്ലാവരും ഇതിനൊക്കെ ഒരു സമയമായി കഴിഞ്ഞാൽ ഏറ്റവും വിളകൾ ഒക്കെ ഉണ്ടാകുന്ന വ വാഴേൻ്റെ ഒക്കെ സമയമായി കഴിഞ്ഞാൽ എല്ലാരുടെ വീട്ടിലും ഉണ്ടാകും വാഴകൾ അതിൽ നിന്ന് കുലക്കുന്ന കായ അടുത്ത ഷോപ്പിൽ കൊണ്ട് എടുക്കുക നല്ല ആദായം കിട്ടുന്നൊരു സംഭവമാണ് അതു പോലെ തന്നെ തെങ്ങിൽ നിന്ന് തേങ്ങ വലിക്കുക ഇവിടെ തേങ്ങ പൊളിച്ചിട്ട് കൊണ്ടു കൊടുക്കുക അതു പോലെ തേങ്ങ ആട്ടി വെളിച്ചെണ്ണ ആക്കി കച്ചവടം ചെയ്യുക

നല്ല ആദായം കിട്ടുന്ന വിളവാണ് അതു പോലെ നമ്മൾ ഈയടുത്ത് നമ്മളുടെ നാട്ടിൽ കണ്ട ഒന്നാണ് വത്തക്ക കൃഷി ഒരാൾ ഒരു വലിയ സ്ഥലം എടുത്തിട്ട് പല ഐറ്റംസ് വത്തകകൾ കൃഷി ചെയ്യുക എന്നങ്ങോട്ട് അതിൻ്റെ കിട്ടിയ ആദായം എന്നു പറഞ്ഞാൽ നല്ല ആദായം കിട്ടിയ കച്ചോടമായിരുന്നു മൊത്തത്തിൽ ഈ കഴിഞ്ഞ നോമ്പിൽ എന്നാൽ പല ഐറ്റംസ് ഉള്ളിൽ മഞ്ഞ കളറുള്ള വത്തക്ക ഓറഞ്ച് കളറുള്ള വത്തക്ക നമ്മളുടെ സാദാ കിട്ടുന്ന വത്തക്ക റാനി വത്തക്ക എല്ലാ ഐറ്റംസും ഒറ്റക്ക് ഒരൊറ്റ തോട്ടത്തിൽ അത് ദേ വള പിടുപ്പിച്ചും അതിൻ്റെ സെയിലും കാര്യങ്ങളും നടക്കും ആ തോട്ടത്തിൽ തന്നെ വത്തക്ക ഓരോരുത്തരും എടുക്കുക തൂക്കുക എന്നിട്ടു കച്ചവടം ഒക്കെ അതൊക്കെ പറഞ്ഞാൽ നല്ല ആദായം കിട്ടിയാൽ നമ്മുടെ കേരളത്തിൽ നമ്മുടെ നാട്ടിലും ഇങ്ങനത്തെ കൃഷികൾ നടക്കും ആ കൃഷി കൊണ്ട് നമുക്ക് ആദായം ലഭിക്കും തെളിയിച്ച ഒന്നാണിത് വത്ത കൃഷിയെന്നു പറയുന്നത്

നല്ല മാർക്കറ്റാണ് അതിനുള്ളത് അതുപോലെ പിന്നെ തേങ്ങ